ഗ്രാമത്തിലെ പലചരക്ക് കടകൾ എന്നു പറയുമ്പോൾ അത് നഗരത്തിലെ പട്ടണത്തിലെ കടകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അത് അങ്ങനെ തന്നെയാണ് കാരണം ഗ്രാമം എന്നു പറയുമ്പോൾ ഗ്രാമവും പട്ടണവും തമ്മിലുള്ള ഡിഫറൻസുകൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റായിട്ട് വരുന്നതാണ് ഫേസ് ടു ഫേസ് ഇൻററക്ഷൻ അല്ലെങ്കി ക്ലോസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന സാധനം അത് അർബൻ ലൈഫിൽ പട്ടണത്തിൽ ഒരിക്കലും അങ്ങനെയല്ല പക്ഷെ ഒരു ഗ്രാമത്തിലാകുമ്പോൾ അത് വളരെ കൂടുതലാണ് ഇൻഡിമസി കൂടും ആളുകൾക്കിടയിൽ അപ്പം അത് ആ ഒരു സാധനമാണ് ഇവിടെയുള്ള പലചരക്ക് കടകളിലും കൃത്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഇപ്പം ഒരു നഗരത്തിൽ പോയിട്ട് അവിടെ നിന്ന് സാധനം വാങ്ങുന്നത് പോലെ നമ്മൾ എന്താകും ജസ്റ്റ് പോയിട്ട് സാധനം വാങ്ങും അതിനുള്ള ക്യാഷ് കൊടുക്കും പോരും ദാറ്റ്സ് ഓൾ അവിടെ കഴിയും പക്ഷെ നമ്മൾ ഒരു ഗ്രാമത്തിൽ നമ്മൾ നാട്ടിലുള്ള പലചരക്ക് കടയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കണ്ടു അതൊന്ന് സുഖവിവരം അന്വേഷിക്കും അത് സ്വാഭാവികമാണ് പോയിട്ട് എന്താണ് എന്താണ് ചേട്ടാ സുഖമല്ലേ എന്തൊക്കെയാണ് വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കും അതങ്ങനെയാണ് ഗ്രാമത്തിലുള്ള കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഗ്രാമത്തിലുള്ളവർക്ക് അറിയാതെ ആ ഒരു അ ഫീലിങ് അറിയാം കാരണം ആ കട ആശ്രയിച്ചിട്ടാണ് ആ ഗ്രാമം ഇവ നിലനിൽക്കുന്നത് അവിടെ പോയിട്ട് നല്ല രീതിയിൽ ചിരിച്ചിട്ട് സന്തോഷത്തോട് കൂടി അങ്ങനെ ചോദിച്ചിട്ട് സൗകര്യങ്ങൾ അന്വേഷിച്ചിട്ട് സാധനം വാങ്ങി അത് തന്നെ ക്യാഷ് കൊടുക്കുന്നത് ചിലപ്പോൾ അപ്പം തന്നെ കൊടുക്കണം എന്നില്ല അവിടെ വിലപേശൽ വിലപേശൽ ഉണ്ടാകാം അത് സൗഹൃദപരമായിട്ടുള്ള വിലപേശലുകളാണ് അവിടെ ഉണ്ടാവുക അല്ലാതെ ഒരിക്കലും ദേഷ്യപ്പെടുക അങ്ങനത്തെ ഒന്നും അല്ല സൗഹൃദപരമായിട്ടുള്ള വിലപേശലുകൾ ഉണ്ടാാവും പിന്നെ പണം നൽകുക എന്നുള്ളത് അത് നമ്മൾ പറയും ഒന്നിക്കിൽ പറയും പറ്റിൽ എഴുതിക്കോളി എന്ന് പറയും അല്ലെങ്കിൽ പറയുക എന്താണ് പറ്റിലൊന്നും എഴുതുകയില്ല എന്താണ് പറയുക അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്താവാം ആ പൈസ കൂടി കൂട്ടിയിട്ട് കൊണ്ടു വരാം എന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് നമ്മൾ എന്താവും സാധനം വാങ്ങിയിട്ട് പോരുന്ന അവസ്ഥയാണ് ഗ്രാമത്തിൽ ഉള്ളത് അതാണ് അത്രയും ക്ലോസായിട്ട് അത്രയും നല്ല ബന്ധത്തിലാണ് ഗ്രാമത്തിലെ പലചരക്ക് കടകൾ ഉണ്ടാവുക അവിടെ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്താണെന്ന് വച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ഗ്രാമത്തിലെ പലചരക്ക് കട പറയുന്നത് ഒരിക്കലും പട്ടണത്തിൽ പോയിട്ട് നമ്മൾ വാങ്ങുന്ന അങ്ങാടിയിൽ പോയിട്ട് വാങ്ങുന്ന ആ ഒരു രൂപത്തിലുള്ള സാധനങ്ങൾ അതൊന്നും അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമുക്ക് ബേസിക്കായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനത്തെ കടകളാണ് ഗ്രാമത്തില അധികവും ഉണ്ടാവുക അപ്പം എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ ഗ്രാമത്തിലൊക്കെ അങ്ങനത്തെ കടയാണ് ഉള്ളത് അപ്പം ഞാൻ പോയി വിലപേശാറൊന്നുമില്ല പോകും സാധനം വാങ്ങും ചിലപ്പോൾ ക്യാഷ് അപ്പം കൊണ്ടു പോകുന്നില്ല പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് പോരും അത്രയും ക്ലോസ് റിലേഷൻഷിപ്പ് ആണ് അപ്പം ആ ഒരു വ്യത്യാസമാണ് എനിക്ക് നഗരത്തിൽ നിന്നുള്ള പലചരക്ക് കടകളിൽ നിന്ന് ഗ്രാമത്തിലെ പലചരക്കു കടകളെ വ്യത്യസ്തമാക്കുന്നതെന്ന് എനിക്ക് പലപ്പോ്ഴും തോന്നിയിട്ടുണ്ട് കാരണം അവിടുത്തെ പലചരക്ക് കടക്കാരനായാൽ ഒക്കെ നമ്മൾ ഒരിക്കലും പട്ടണത്തിലുള്ളത് പോല അല്ലല്ലോ പലചരക്ക് കടക്കാാരനായാലുമൊക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് ഇടപഴകുക നമ്മുടെ പേര് വിളിച്ചിട്ട് എന്തൊക്കെ ഇവിടെ നാട്ടിലുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് പല ഗ്രാമത്തിലെ പലചരക്കു കടക്കാർ നമ്മളോട് ഇടപഴകുന്നത് അപ്പ അവിടുത്തെ സാധനങ്ങൾ ചിലപ്പോൾ പട്ടണത്തിലായതുകൊണ്ട് കുറച്ചു വില അൽപ്പം കൂടി കൂടുതൽ ഉണ്ടാകാം പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുക